അങ്ങനെ പ്രത്യേകിച്ച് ഉത്സവങ്ങൾ അങ്ങനെ അങ്ങനെ എന്ന് വെച്ചിട്ട് ഇല്ല നമുക്ക് പെരുന്നാൾ ഉത്സവം നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു വളരെ ആർഭാടമായിട്ട് നല്ല രീതിയിലുള്ള ഉത്സവമായിരുന്നു ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഉത്സവത്തിന് അപ്പം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കാൻ പറ്റിയ ഉത്സവം നമ്മൾ എല്ലാവരും കൂടുന്നത് ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടുന്നതാണ് വള്ളിയൂർക്കാവ് ദേവിയുടെ ഉത്സവത്തിന് വള്ളിയൂർക്കാവമ്മയുടെ ഉത്സവത്തിന് അപ്പം അവിടെ പ്രാർത്ഥിക്കാനൊന്നും കയറിയില്ലെങ്കിലും അവിടെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പോവും അവിടെ വാൾ കൊണ്ടുവരുന്നതും പിന്നെ ആന ആനേനെ കൊണ്ടുവരുന്നതും അവിടുത്തെ അതൊക്കെ കാണുമ്പം അവർക്ക് എല്ലാ അവിടെ എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണം ഒക്കെ കിട്ടും ആർക്ക് വേണമെങ്കിലും പോയി കഴിക്കാം അപ്പം മേലെ ഒരു അമ്പലമുണ്ട് താഴെ ഒരു അമ്പലമുണ്ട് ഒത്തിരി ജനങ്ങളുണ്ട് ആ എക്സിബിഷൻ ഹാൾ ഉണ്ട് മക്കൾക്ക് കളിക്കാനുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെക്കെ എനിക്ക് അങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത് എനിക്ക് അല്ലാതെ എങ്ങനെ ആഘോഷിക്കുന്നത് എനിക്കറിയില്ല പിന്നെ നമ്മൾ ആഘോഷിക്കുന്നത് വിഷു ഓണം ക്രിസ്മസ് അതൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങൾ അതൊരു ഉത്സവം പോലെത്തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഓണം തന്നെയാണ് കാരണം ഓണം എന്ന് പറയുമ്പം കേരളീയരുടെ ഉത്സവമാണ് അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കും ഞാൻ മുസ്ലിം ആണ് എനിക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് ആരും പറയില്ല മുസ്ലിങ്ങളുടെ വീട്ടിലും വളരെ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കും അതേപോലെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാവരും ഓണം ആഘോഷിക്കും അതുപിന്നെ ജാതിയുടെ ഒരു പിന്നെ മതിൽ കെട്ടില്ല എല്ലാവരും തുല്യരാണെന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്ന ഒരു നല്ല ഉത്സവമാണ് ഭക്ഷണം ഒക്കെ വെച്ച് എല്ലാവരുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കലും പായസം കഴിക്കലും പിന്നെ പൂക്കളം ഇടൽ എല്ലാവരും വീട്ടിൽ പൂക്കളം ഇടും ഞങ്ങളും കുറച്ച് പൂക്ക പൂക്കളൊക്കെ വാങ്ങി ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ കൂടെ ഇരുന്ന് ഇടാറുണ്ട് പക്ഷേ ഭക്ഷണം സദ്യയാണ് അന്നത്തെ ദിവസം കുറച്ച് സദ്യ എല്ലാവർക്കും എല്ലാ ദിവസവും നമ്മൾ സദ്യ വയ്ക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അങ്ങനെ സദ്യയൊക്കെ വെച്ച് ആഘോഷിക്കാറുണ്ട് അല്ലാതെ ഉത്സവങ്ങൾ ഒക്കെ എന്നുപറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉത്സവങ്ങളാണ് അമ്പലത്തിൽ ഉത്സവം പിന്നെ അമ്പലസ് അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങളും തിറകളും പിന്നെ പെരുന്നാളുകൾ പിന്നെ ഇങ്ങനെ വരുന്നത് വിഷു ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്